ഓഹ് ഇത് കരിന്തുവാലാ റെസ്റ്റോറൻ്റ് ആണോ അവിടെ മീൻകറി ഞാനൊരു കസ്റ്റമർ ആണേ ഒരു പിന്നെ പ്രത്യേക ഐറ്റം ചോദിക്കാൻ വേണ്ടി വിളിക്കുകയായിരുന്നേ ഞങ്ങൾക്ക് അത് അത്യാവശ്യമായിട്ട് വേണമായിരുന്നു കുറച്ച് അധികം മീൻകറി മീൻ വറുത്തത് പിന്നെ കൊഞ്ച് കൊഞ്ച് വറുത്തത് ഇത് മൂന്നും ഞങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് ഒരു പതിനൊന്ന് മണിക്കകം സുമംഗലി ഓഡിറ്റോറിയത്തിലൊന്ന് എത്തിക്കാമോ അത്യാവശ്യമായിരുന്നു ഇല്ല ഇന്നല്ല രണ്ടുദിവസം കഴിയുമ്പം പന്ത്രണ്ട് മണിയാവുമ്പം കൊണ്ടുവരണം ഞങ്ങൾക്ക് അവിടെയൊരു ഫംഗ്ഷനുണ്ട് നൂറ് പേർക്കുള്ളത് കൊണ്ടു വരണം വേണ്ട ഞങ്ങൾക്ക് ഇതാണ് അത്യാവശ്യം ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് നിങ്ങളുടെ ഇത് അവിടെ നിന്ന് ഇത് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇത് നിങ്ങളെ നല്ലതാണ് കരിന്തുവാലയിൽ പറയുന്നതിങ്ങനെ കേട്ടു അതുകൊണ്ട് ചോദിക്കുകയായിരുന്നു അത് ഞങ്ങൾക്കിപ്പം ഞങ്ങൾക്ക് ഒരു ഒരു പ്ലേറ്റ് സാമ്പിളായിട്ട് ഇന്ന് വൈകിട്ട് എത്തിക്കാൻ പറ്റുമോ സുമംഗലി ഓഡിറ്റോറിയം ചങ്ങനാശ്ശേരി ഫ്രൈ ഫ്രൈ ഞാനൊരു വാട്സ്ആപ്പ് നമ്പർ ഇട്ടേക്കാം അതിനകത്ത് ഫ്രൈ ഓരോന്നിൻ്റെയും ഫ്രൈയുടേയും കറിയുടെയും പിന്നെ വറുത്തതിൻ്റെയൊക്കെ വില ഇട്ടേക്ക് അപ്പം ഇതെല്ലാം ഇട്ട് ഇന്ന് ഞങ്ങൾക്ക് വൈകിട്ട് ആ സാധനം എത്തിക്കുമ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് താൽപര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് വിളിച്ച് ഇതിന് ഓഡർ ചെയ്യുന്നതായിരിക്കും ആ ഞാൻ അത് ഇപ്പം അതിപ്പം വൈകിട്ട് കുറച്ച് രണ്ട് മീൻ എക്സ്ട്രാ ഫ്രൈയും കൂടെ കൊടുത്തു വിട്ടേക്ക് അപ്പം നല്ലതാണെങ്കിൽ ഞങ്ങൾ അതിനും കൂടെ ഓഡർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും

ഒരു അതെ അതെ

ഇപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഈ മൂന്ന് സാധനങ്ങള് അത്യാവശ്യമായിട്ട് വേണം എന്നു പറഞ്ഞാൽ ഞങ്ങള് ഓഡർ കൊടുത്തതിനകത്ത് ഈ മൂന്ന് സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടാൻ അവിടെ നിന്ന് നോക്കിയിട്ട് അത് കൊള്ളത്തില്ല അപ്പം ഈ സാധനം ഞങ്ങൾ കിട്ടാതെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ ഞങ്ങള്ക്ക് ഈ മൂന്ന് സാധനങ്ങൾ അത്യാവശ്യമായിട്ട് തന്നിരിക്കും പിന്നെ അവിടെയുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് മീൻ മീൻകറി മീൻ ഫ്രൈയ് കൊഞ്ച് വറുത്തത് ഇന്നൊരു അഞ്ചുമണിക്ക് മുമ്പ് എത്തിക്കണം ഓക്കെ ഇട്ടേക്കാം ആ എല്ലാ ഞങ്ങളെ ഡീറ്റെയിൽസ് മൊത്തം അതിനകത്ത് ഇട്ടേക്കാം എന്നാൽ ആ പറയാം

പറയാം ശരി താങ്ക് യൂ